യൂട്യുബിൽ ടിവിയിലും പാചക രീതികളൊക്ക കാണാറുണ്ട് അതിൽ ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട് ചിലത് നമ്മൾ വീട്ടിൽ കൈകാര്യം ചെയ്യാറും ഉണ്ട് ആ ചിലത് നന്നാവും ചിലത് ഡിഷുകളൊന്നും നന്നാവാറില്ല അത് സൂര്യ ടീവി കൈരളി ടീവി മഴവിൽ മനോരമ ഇങ്ങനെയുള്ള ടീവി ചാനലുകൾ കാണാറുണ്ട് അത് ആഴ്ചയിൽ ഒരിക്കലെയുള്ളു സമയം കിട്ടുമ്പോൾ അത് ചിലപ്പോൾ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ പരീക്ഷിക്കാം ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ചിലതൊക്കെ ഞാൻ പരീക്ഷിക്കാറുണ്ട് ചിലത് നന്നാകും ചിലത് നന്നാവാറില്ല പിന്നെ എപ്പോഴും ഇത് കാണാനും നിൽക്കാനും പറ്റിയ ഒരു സമയം നമുക്ക് കിട്ടാറില്ല നമ്മൾ കാണുമ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ട് അത് പോലെ ചിലപ്പം ഇടയ്ക്ക് ചെയ്യാനും നോക്കാറുണ്ട് നമ്മൾ വീട്ടിൽ അത് ചിലതൊക്കെ നന്നാവും പിന്നെ എല്ലാം ഒന്നും നമുക്ക് പരീക്ഷിക്കാനും വീട്ടിൽ പറ്റില്ല കാരണം ഈ ഇറച്ചിയും മീനും അങ്ങനെയുള്ള ഡിഷ്കളൊന്നും നമുക്ക് വീട്ടിൽ അതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മൾ പച്ചക്കറികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് പച്ചക്കറികളുടെ എന്തെങ്കിലും ഡിഷുകളൊക്കെ കണ്ടാൽ ഞാൻ പരീക്ഷിച്ച് നോക്കാറുണ്ട് അത് ചെയ്തും കൊണ്ടു ഇരിക്കാറുണ്ട് ചിലത് നന്നാവും ചിലത് നന്നാവാറില്ല